ആ പറഞ്ഞോളൂ

ആ ഞങ്ങൾ തന്നെയാണ് പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ഞങ്ങള ഇവിടെ അപ്പവും മുട്ട മുട്ടക്കറിയും ഉണ്ട് പിന്നെ അപ്പവും കടലക്കറിയും പുട്ടും കടലക്കറിയും അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് ആ എല്ലാം ആ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ആ ആ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്കേതാണോ നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് അത് ഞങ്ങൾ അപ്പം തന്നെ സ്പോട്ടിൽ ഉണ്ടാക്കി തരുവാണ് ചെയ്യുന്നത് ആ നോൺ വെജ് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ വേണോ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പോന്നോളൂ കുഴപ്പം ഒന്നും ഇല്ല നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം അമ്പത് പേർക്ക് അല്ലേ ആ എന്ന് ആ ഓക്കെ നോൺ വെജ് ഒന്നും ഇല്ല ആ ഓക്കെ എത്ര മണിക്കാണ് നിങ്ങൾ എന്നാണ് എന്നാണ് വരുന്നത് ഏപ്രിൽ ട്വൻറ്റി ഫിഫ്ത്തിന് അല്ലേ ആ ഓക്കെ ഓക്കെ പോന്നോളൂ എന്തായാലും ഞങ്ങൾ ഇവിടെ റെഡി ആക്കി തരാം നിങ്ങൾക്ക് താമസ സൗകര്യം അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളും ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ആ ഉണ്ട് ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ എല്ലാം റെഡി ആക്കി തരാം ആ അതിന് അതിന് അതിന് വലിയ റെന്റ് ഒന്നും ഇല്ല ചെറിയൊരു എമൗണ്ട് മാത്രം ഈ ഫുഡിന്റെ ഒപ്പം നിങ്ങൾ പേ ചെയ്താൽ മതി വലിയ കാര്യ കാര്യമായിട്ടുള്ള ഇതൊന്നും വേണ്ട ഓ അഡ്ജസ്റ്റ് ചെയ്തുതരാം വേറെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണോ ആ എല്ലാം ഉണ്ട് സദ്യ ഉണ്ട് ആ ആ ആ ഓക്കെ ഓക്കെ എല്ലാം ഉണ്ട് നമ്മുടെ ഇവിടെ എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്തുതരാം മേഡം വന്നാൽ മതി ആ

ആ എന്നാൽ ഒന്ന് വിളിച്ചാൽ മതി ഓക്കെ ഏതായാലും